പഴയ കലണ്ടറുകൾ വർഷങ്ങളായിട്ടുള്ള കാ കാലങ്ങളും ഡേറ്റുകളും അതുപോലെ തന്നെ നാളുകളും കലണ്ടറിലുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പഴയ കലണ്ടറിൽ നമുക്ക് വളരെ സഹായകമാണ് അതു കാരണം ഞാനുണ്ടല്ലോ പഴയ കലണ്ടർ എല്ലാം വളരെ സൂക്ഷിച്ച് പ്രത്യേകം അത് ഒരു സെൽഫിൽ അടുക്കി വെക്കും കാര്യമെന്നു വെച്ചാൽ നമുക്ക് ഏതൊരു ആവശ്യത്തിനും പഴയ കലണ്ടർ അതുപോലെ തന്നെ ഒരു നമ്മുടെ പല വിശേഷങ്ങളൊക്കെ നമ്മൾ കലണ്ടറിൽ സാധാരണ കുറിച്ചു വെക്കാറുണ്ട് ആ കുറിച്ച് വെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അതിലെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അത് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനു വേണ്ടി അതെടുത്തു നോക്കുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പഴയ കലണ്ടർ നശിപ്പിച്ചു കളയാതെ അത് അതൊരു ഒരു വർഷത്തെ ഒരു സാധനമല്ല അപ്പം അത് എനിക്ക് എന്തെങ്കിലും ഏകദേശം ഒരു പത്ത് ഇരുപത് കലണ്ടറോളം പഴയ കലണ്ടർ ഉണ്ട് അപ്പം നമുക്ക് ആ നമ്മുടെ അടുത്ത തലമുറക്കാണെങ്കിലും അത് എടുത്തു നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴും അത് നഷ്ടപ്പെടാതെ അതിലെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ ഇപ്പം പുതിയ ത ആ കലണ്ടർ വെച്ച് താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് അഡ്വാൻസായിട്ട് പുതിയ കലണ്ടർ വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും പഴയ കലണ്ടർ നമുക്കതൊരു നല്ല കാര്യമാണ് ഓക്കെ